നിങ്ങളുടെ ഞാൻ മറ്റേ രഞ്ജി സാറ് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് ഗൈഡാണ് നിങ്ങളെത്ര പേരാണ് ഇവിടെ വരുന്നത് അ ആ അപ്പം നിങ്ങള് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അ ആ ആ ആ അപ്പം അതൊരു ഇന്നോവ മതി ആയിരിക്കുമല്ലൊ ഏഴ് പേഴ് ആകുമ്പം അപ്പം അത് ഞാൻ ഏർപ്പെടുത്തി ഇവിടുത്തെ ഡ്രൈവർ ന് ഞാൻ മേഡത്തിൻ്റെ നമ്പര് കൊടുക്കാം അപ്പഴ് നിങ്ങള് തമ്മിൽ അങ്ങ് വിളിച്ചോളുവല്ലോ എവിടേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ഏതൊരു ടൂറിസ്റ്റ് വാരുന്നാലും വന്നിരുന്നാലും വിദേശികൾ ആരാണേൽ തന്നെയും അവിടെ വരാതെ ആരും പോകുകയില്ല പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അതിൻ്റെ ഒരഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ആറ്റുകാൽ അമ്പലമുണ്ട് ആറ്റുകാൽ അമ്പലം കേട്ടിട്ടുണ്ടോ നമ്മള് സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ഗിന്നസ് ബുക്കിലൊക്കെ കയറിയതാണ് ആറ്റുകാൽ അമ്പലം അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് അവിടെ അവിടെ കോടികണക്കിന് എണ്ണമറ്റാത്ത രത്നങ്ങളും പവിഴങ്ങളും ഒക്കെയാണവിടെ സൂക്ഷിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ കാലത്തേയുള്ള കൊട്ട് അമ്പലമാണത് ഇപ്പഴും അതിൻ്റ അവശേഷിപ്പുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇപ്പം രാജാക്കൻമാരല്ല ഭരിക്കുന്നത് ഇപ്പം അവടത്തെ ട്രസ്റ്റാണ് ഭരിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളു ഒരുപാട് പേര് വരാറുണ്ട് പിന്നെ ടൂറിസ്റ്റ് വേറൊര് ടൂറിസ്റ്റ് കേന്ദ്രമെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയില് പ്രധാനപ്പെട്ടത് കോവളമാണ് കോവളവേ ഒര് എൻ്റർറ്റേയ്ൻമെൻറ്റിന് വേണ്ടീട്ട് ആ കുട്ടികൾകൊക്കെ ഒര് ടൂറായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് കോവളം അതിന് അടുത്താണ് നമുക്കിപ്പം നിങ്ങൾക്ക് താമസ സൗകര്യമെല്ലാം ആ അവിടെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അ ആ അപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേര് കാണുവല്ലേ റേറ്റ് ഒരാൾക്ക് രണ്ടായിരത്തിയഞ്ഞൂറ് രൂപയാണ് പറയുന്നത് അതില് മൂന്ന് നേരത്തെ ഫുഡ്ഡെല്ലാം ഉൾപ്പെടെയാണ് കുട്ടികൾക്ക് മുഴുവൻ ആയിരത്തിയഞ്ഞൂറ് രൂപയാണ് ആ നല്ല ഫുഡ്ഡാണ് നല്ല കേരള ഫുഡ്ഡാണ് നല്ല ട്രിവാൻഡ്രം സ്റ്റൈലിലെ ഫുഡ്ഡുകളാണ് എല്ലാം നമ്മളുടെ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ഫാസ്റ്റ് ആയിരുന്നാലും ഉച്ചക്കത്തെ ലഞ്ച് ആയിരുന്നാലും ഡിന്നർ ആയിരുന്നാലുമൊക്കെ നല്ല ഇതാണ് പിന്നെ ഇടയ്ക്ക് സ്നാക്ക്സ് ഉണ്ട് അതെല്ലാം ഈ രണ്ടായിരത്തിയഞ്ഞൂറിനക ത്താണ് വരുന്നത് ആ ആ ആ പിന്നെ ഈ വണ്ടിയുടെ വാടക നിങ്ങള് കൊടുക്കേണ്ടി വരും വണ്ടിയുടേത് വണ്ടിയുടേത് നിങ്ങള് തന്നെ കൊടുക്കേണ്ടി വരും ആ ആ നിങ്ങള് തന്നെ ഡ്രൈവറിനെ വിളിക്കുവാണെങ്കിൽ അപ്പം എവിടെവെച്ചാണ് നിങ്ങളുടെ പിക്കപ്പും എവിടെയാണ് ഡ്രോപ്പും എന്നൊക്കെ ഡ്രൈവറിനോട് തന്നെ പറയാമല്ലൊ ആ ആ ആ ആ അപ്പം ഡ്രൈവർൻ്റെ ആ നമ്പര് ഞാൻ വാ ഈ നമ്പറില് വാട്സപ്പ് ഉണ്ടെങ്കിൽ ഞാനതിലേക്ക് സെൻ്റെ ചെയ്യാം ആ ആ ശരി മേഡം എന്നാൽ ഓക്കെ